എന്റെ പ്രദേശത്ത് അത് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്റെ സ്ഥലം അതിനോട് അനുബന്ധിച്ച് ഒത്തിരി ട്രാവൽ ഏജൻസികളും ഏജന്റുമാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതിനകത്ത് നൂറ് കണക്കിന് ജോലി അന്വേഷിച്ചുവരുന്ന അന്വേഷിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വരുകയും അതിനകത്ത് ഇന്റര്വ്യൂ നടക്കുകയും യൂറോപ്യൻ കണ്ട്രിയില് നിന്നുള്ള ആള്ക്കാർ വരുകയും അവർ ഇന്റര്വ്യൂ നടത്തി അനേകായിരം ആള്ക്കാർ അത് അത് മുഖാന്തരം പല സ്ഥലങ്ങളിലും യാത്രയാവുകയും ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ഇതാണ് ട്രാവൽ ഏജൻസിയെ കുറിച്ച് പറയുമ്പോൾ ട്രാവല് എജന്റുമാരെ കുറിച്ച് പറയുമ്പോള് അങ്ങനെ ഒരു തൊഴിലില്ലാതിരിക്കുന്ന ആള്ക്കാര്ക്ക് തൊഴിൽ കണ്ടെത്താന് വേണ്ടിയും നല്ല നല്ല കാര്യങ്ങൾ അവർ ചില ങ്ങള് ചെയ്യുന്നതിന് വേണ്ടിയായിട്ടുള്ള അതിനെ കുറിച്ച് സംസാരിക്കുക അതിന് പരസ്യം ചെയ്യുകയും മറ്റ് ജനങ്ങളെ ബോധവാന്മാർ വിളിച്ചു അറിയിക്കുകയും ചെയ്യുന്ന ഒരു ഏജന്സിയാണ് ട്രാവല് എജന്സിന്നാണ് ഞാന് കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവരില് നല്ല ഏജന്റുമാർ ഉണ്ട് കുറെ ചില ചില ആള്ക്കാർ പൈസ മാത്രം പിടുങ്ങുന്ന കൈക്കലാക്കാന് വേണ്ടിയായിട്ട് കൃത്രിമ രീതിയിലുള്ള ഏജന്റുമാരായിട്ടുള്ള ആള്ക്കാരുണ്ട് അവർ ആ ജോലി കൊടുക്കാം അവിടെ അങ്ങോട്ട് വിടാം എന്നൊക്കെ പറഞ്ഞു ലക്ഷങ്ങള് കൈയാമം മേടിക്കയും മുങ്ങിക്കളയുകയും ചെയ്യുന്ന ഒരു സന്ദര്ഭങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ഒരേ യാകുമ്പോള് നിരപരാധികളായിട്ടുള്ള ഒന്നും അറിയാമേലാത്ത സാധാരണക്കാരായിട്ടുള്ള ചില ജനങ്ങൾ ഇതിനകത്ത് പെട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇതിനാണ് ഒരു ദോഷവശം പറയാന് പറ്റും